പ്രധാനമായും ബാങ്കുകളെ ആശ്രയിച്ചാണ് നമ്മുടെ ആളുകൾ വായ്പ്പകളും നിക്ഷേപങ്ങളും സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്തു കൊണ്ട് വാങ്ങിക്കുകയും ചെയ്ത് കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒട്ടേറെ കടമ്പകൾ ബാങ്കുകളിൽ ചെല്ലുമ്പോൾ അവർ നൂലാമാലകൾ ഉള്ളതുകൊണ്ട് പല ആളുകളും അതിൽ നിന്ന് പിന്തിരിയുന്ന ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥാ വിശേഷമാണ് നമുക്ക് കണ്ടുവരുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് മറ്റു പല മാർഗങ്ങളിലൂടെയും അവർ പണം എങ്ങനെയെങ്കിലും അത്യാവശ്യ കാര്യത്തിനുവേണ്ടി എടുക്കുന്നതിനു വേണ്ടി സമീപിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി സ്വാശ്രയ സംഘങ്ങളുണ്ട് സ്വാശ്രയ സംഘങ്ങളിലൂടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇരുപത് പേരടങ്ങുന്ന എസ് എച്ച് ജികൾ സെൽഫ് ഹെൽപ് ഗ്രൂപ്പ് അവർ രൂപീകരിച്ചതിനു ശേഷം അതിലൂടെ സമാഹരിക്കുന്ന പണം അംഗങ്ങൾക്ക് യാതൊരു ഈടുമില്ലാതെ ഇത് കൊടുക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉള്ളതുകൊണ്ട് മുറ്റത്തെ ഒരു ബാങ്ക് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് നമക്ക് അങ്ങനെയുള്ള എസ് എച്ച് ജി വഴിയായിട്ട് അത്യാവശ്യത്തിനുള്ള പണങ്ങൾ സമ്പാദിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റ് ഫൈനാൻസിങ്ങ് സ്ഥാപനങ്ങളുണ്ട് പക്ഷേ അത് വിശ്വസ്ഥതയോടെ നടത്തുന്ന ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ ചെന്നു പെടാവു എന്നുള്ള ഒരു വസ്തുത നാം മനസിലാക്കിയിട്ട് വേണം പല സ്ഥാപനങ്ങളും നൊടിയിടയിൽ പൊങ്ങുകയും മുളച്ചുവരുകയും അതുപോലെ തന്നെ അസ്തമിക്കുന്ന ഒരു സ്ഥിതി വിശേഷം നമ്മളെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് അത് മാറേണ്ടിയിരിക്കുന്നു അവിടെ നിന്ന് പണം എടുത്തു കഴിഞ്ഞാൽ അമിതമായ പലിശ ഈടാക്കുന്ന ഒരു സംവിധാനംകൂടി ഉള്ളതുകൊണ്ട് ആളുകൾ വളരെ നോക്കിയിട്ട് വേണം അതിൽനിന്ന് അതിൽനിന്ന് അവിടെ നിന്നുമൊക്കെ പണമെടുക്കുന്നതിന് അതുപോലെ തന്നെ എൽ ഐ സി ഈന്നുണ്ട് ഫണ്ടുകൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങള് ബാങ്ക് അല്ലാതെ മറ്റു വിധത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ പണമെടുക്കാവുന്നതാണ് നമ്മൾക്ക്